ഞാൻ എന്റെ ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അതും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പലരും എൻ്റടുത്ത് പറഞ്ഞു

പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ എനിക്ക് വിവിധ തരത്തിലുള്ള കോഴ്സുകളും ജോലികളും ലഭിക്കുമെന്നും ഞാനിങ്ങനെ അറിഞ്ഞു അപ്പോൾ പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചറിയാൻ എനിക്ക് ആരെയും അറിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പി എം കെ വി വൈ നെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് എന്തൊക്കെ രേഖങ്ങൾ കൊണ്ടാണ് എനിക്ക് പി എം കെ വി വൈ യിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക അതുപോലെതന്നെ എന്റെ ഡേറ്റ അപ്ലോഡ് ചെയ്യുവാനായി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും എനിക്ക് അറിയില്ല അതുപോലെ തന്നെ എന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഞാനെങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യണമെന്നതിനേക്കുറിച്ചും എനിക്ക് അറിയില്ല അപ്പം ഈ ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ വളരെയധികം ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ പി എം കെ വി വൈ പ്രൊഫൈലിൽ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാനുള്ള എന്റെ പേര് അഡ്രസ് അതുപോലെ വയസ്സ് എവിടുന്നു വരുന്നു എന്തൊക്കെയാണ് പഠിച്ചത് എന്നെങ്കിലും മുൻ ജോലി ഉണ്ടായിരുന്നോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള കാര്യങ്ങളെനിക്ക് മനസിലായെങ്കിലും പൂർണ്ണമായി അത് എങ്ങനെ ശരിയാക്കണം എന്നുള്ള കാര്യമെനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടുതന്നെ എനിക്ക് ഇതിന് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സഹായിയുടെ ആവശ്യമുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഡേറ്റ അപ്ലോഡ് ചെയ്യുകയാണെങ്കില് എനിക്ക് കൂടുതൽ ജോലി സാധ്യതകൾ ലഭിക്കുമെന്നും അതുപോലെ എന്റെ സ്കിൽസ് എന്റെ കഴിവുകൾ ഇതിലൂടെ ഉത്തേജിപ്പിക്കാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഷോർട്ട് ടെർമ് കോഴ്സുകൾ ഈ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയിലൂടെ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു